മികച്ചതും ആയാസകരവുമായ ജീവിതം നയിക്കാനൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് വേണെങ്കിൽ പറയാം ഇപ്പോൾ എഐന്ന് പറഞ്ഞതിൻ്റെ ഒരു കാലഘട്ടാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റജില്ലൻസ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെത്തന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വേണമെങ്കിൽ പറയാം ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളാ ഉപയോഗങ്ങൾ എന്താണെന്നുവച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് എങ്കിലും ഇപ്പോൾ കാര്യമാകുമ്പോൾ കംപ്യൂട്ടറും കാര്യങ്ങളൊക്കെയാകും അപ്പോൾ ഒരുപാടു പേർക്ക് തൊഴിൽ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും പക്ഷേ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമാണ് പണ്ടൊക്കെയെന്നുവച്ചു കഴിഞ്ഞാൽ നമ്മൾ കണക്കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നോട്ട്ബുക്കിലും കാര്യങ്ങളിലൊക്കെ എഴുതുന്നത് ഇടുന്നതായിരിക്കും ചിലപ്പോൾ തെറ്റും പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോൾ കംപ്യൂട്ടറും കാലഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടുതന്നെ തെറ്റുവരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പിന്നെ ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടത് അപ്പോൾ നമുക്കവിടെ ആവാസയോഗ്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ വല്യൊരു കഴിവ് തന്നെയാണ്